ഈയൊരു കാലഘട്ടത്തിൽ പരമ്പരാഗതമായ കായിക ഇനങ്ങൾ കുറയുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രധാനമായിട്ട് കബഡി കോക്കോ മുതലായ കളികളൊന്നും ആരും കളിക്കാൻ തയ്യാറാകുന്നില്ല സ്കൂളുകൾളും ഇത് കോളേജുകളൊക്കെ ഇതിനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് സാർമാരൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും പല കുട്ടികൾക്കും ഇതിലൊക്കെ ഇടപെടാനൊക്കെ ഒരു ഇടപെടാനൊക്കെ അവർ ഒത്തിരി പുറകോട്ട് കാണിക്കുന്നുണ്ട് അതിന് പകരം ഇലക്ട്രോണിക് ഗെയിമുകളൊക്കെയാണ് അവർ കൂടുതൽ ആശ്രയിക്കുന്നത് കൂടുതലും ഡിജിറ്റൽ ഗെയിമുകളൊക്കെ അവർക്ക് ഭയങ്കര താല്പര്യമുണ്ട് അത് അതൊക്കെയാണ് അവർക്ക് താൽപ്പര്യം ഇതുപോലുള്ള ശരീരം അനങ്ങി ശരീരത്തിന് നല്ല നല്ല രീതിയിൽ പ്രചോദനം കൊടുക്കുന്ന ഇതുപോലെത്തെ ഉള്ള ഗെയിമുകളൊക്കെ കളിക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല കബഡി കോക്കോയൊക്കെ നമ്മളെ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ് അത് നമ്മുടെ ഇൻഡ്യയിൽനിന്ന് ഇൻഡ്യയിൽ തന്നെ രൂപപ്പെട്ട കളികളൊക്കെയാണ് കബഡി കോക്കോ പോലുള്ള കായിക ഇനങ്ങൾ ഇത് ഇത് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പുറകോട്ട് പോവുകയാണ് നമ്മുടെ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികളും യുവാക്കളുമൊക്കെ